ഹലോ ഗ്രീൻ ഗ്രീൻ ലീഫ് പബ്ലിക് സ്കൂളിലേക്ക് സ്വാഗതം

അ ഓക്കെ ഓക്കെ അ നമ്മുടെ നമ്മള് എൽ കെ ജി സ്റ്റുഡൻ്റ് ആകുമ്പോൾ അവർക്ക് ഡോനേഷൻ വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് മാമിന് രണ്ട് പിള്ളേര് ഒരുമിച്ച് ഒരേ വീട്ടിൽ നിന്ന് വരുന്നതാണല്ലോ അപ്പോൾ നമ്മള് രണ്ടുപേർക്കും ഇരുപത്തയ്യായിരം വച്ച് ഈടാക്കില്ല ഒരാൾക്ക് ഇരുപത്തയ്യായിരം രൂപയും പിന്നെ നമ്മൾ അടുത്തയാൾക്ക് ഇരുപതിനായിരം രൂപയുമാണ് വരുന്നത് അപ്പോൾ ഡോനേഷൻ നാല്പത്തി അയ്യായിരം രൂപ വരും പിന്നെ നമുക്ക് പിന്നെ എൽ കെ ജി സ്റ്റുഡൻറ്റിനുള്ള ഫാക്കൽറ്റീസ് പറയുന്നത് ഒരു ടീച്ചറിന് ഒരു സോറി ഒരു ടീച്ചർക്ക് പത്ത് സ്റ്റുഡൻറ്റെന്നുള്ള കണക്കിലാണ് എൽ കെ ജി ലെവലിലുള്ള ക്ലാസ്സ് പോകാം

സ്കൂൾ ബസ്സ് ഫെസിലിറ്റീസ് ഉണ്ട് നമുക്ക് ഒരു ടു കിലോമീറ്ററിന് ഉള്ളിലുള്ള ആൾക്കാരാണെങ്കിൽ ആയിരം രൂപയിലും അതിന് മേലോട്ട് കിലോമീറ്റേഴ്സ് വരുന്നതിനനുസരിച്ച് എമൗണ്ട് വ്യത്യാസം വരും ഒരു ഫിക്സഡ് അമൗണ്ട് പറയാൻ പറ്റില്ല അത് നിങ്ങളുടെ ദൂരം അനുസരിച്ചാണ് നമ്മൾ ആ സമയത്ത് സംസാരിക്കുകയുള്ളു പിന്നെ എൽ കെ ജി സ്റ്റുഡൻറ്റിന് ലഞ്ച് ലഞ്ച് സ്നാക്സ് എല്ലാം നമ്മള് ഇവിടുന്ന് തന്നെ കൊടുക്കും ട്യൂഷൻ ഫീ എക്സ്ട്രായാണ് മന്ത്ലി നമുക്ക് യൂണിഫോം എക്സ്ട്രായാണ് യൂണിഫോമൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ അഡ്മിഷൻ എടുക്കുമ്പോൾ യൂണിഫോം ബുക്സ് എല്ലാം നിങ്ങൾ സെപ്പറേറ്റ് ക്യാഷ് പേ ചെയ്യേണ്ടതാണ് അതെ നമ്മള് ഓരോ മന്തിലും അയ്യായിരം രൂപയാണ് ട്യൂഷൻ ഫീ വരുന്നത് അ അതില് നിങ്ങള് അതിൽ പെടുന്നതല്ല നമ്മളുടെ യൂണിഫോമ് കാര്യങ്ങളൊന്നും അത് എക്സ്ട്രായാണ് അതുപോലെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റിന് ലഞ്ച് എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തു വിടുവാണ് വേണ്ടത് സ്കൂളിൽ നിന്ന് ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല ഓക്കേ ക്ലിയറായോ മാം ഓക്കെ താങ്ക്യൂ